ഇപ്പോൾ ഞാൻ ഫോട്ടോകളിലൂടെ ഇന്ത്യയെ കാണിക്കാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ടെ ഞാൻ എന്ത് ഫോട്ടോ എടുക്കുവെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കി നമുക്കിപ്പം ഇന്ത്യയിൽ തന്നെ വെച്ചിട്ടുണ്ടെ ഒരുപാട് പട്ടിണിപ്പാവങ്ങൾ ഒരുപാടുണ്ട് കാരണംന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം ജോലിക്ക് പോവാൻ പറ്റാണ്ടും അതായത് വീണിട്ടും പിന്ന അല്ലങ്കില് ഇപ്പ അച്ഛൻ അമ്മയില്ലാണ്ടും ഇങ്ങനെ ഒരുപാട് കഷ് കഷ്ട്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളൊണ്ടാവും അതുപോലെതന്നെ ആരും നോക്കാതെ ഇരിക്കുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരെക്കെ ഉണ്ടാവും വൃദ്ധസദനത്തില് പോലും പൂവാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള അച്ഛനമ്മമാരുണ്ടാവും ഭക്ഷണം പോലും കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കി അവർടെ എടേലക്കെപ്പോയിട്ട് ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളുവൊക്കെ എടുക്കണം പിന്നെ അവരുടെ ക്ഷേമൊക്കെ അന്വേഷിച്ച് അതായത് അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കി അവർക്ക് അതായത് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും അതായത് നമുക്ക് ഫോട്ടോയിലൂടെക്കേന്ന് വച്ചിട്ടുണ്ടെങ്കി ഇപ്പം ഇന്ത്യയില് കാണിക്കാനുള്ള ഒരു ഫോട്ടോയാണല്ലോ അപ്പം അതൊക്കെ എല്ലാർക്കും സ് കൂടുതലും ശ്രദ്ധിക്കപ്പെടുവല്ലൊ അപ്പം ആ ശ്രദ്ധിക്കപ്പെടലില് ഇപ്പം അതായത് ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുവാണെങ്കിത്തന്നെ അയിലിപ്പം ഒരുപാട് പിന്നെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കി ശ്രദ്ധിക്കുവാണെങ്കിത്തന്നെ നമ്മക്ക് ഒരുപാട് അതായത് പിന്നെ ആൾക്കാർക്കൊക്കെ സഹായം കാര്യങ്ങളൊക്കെ ചെ അവർക്ക് അതായത് ചെയ്യുവാണെങ്കി ഇപ്പം എനിക്കവരെ അവർക്ക് വേണ്ടി ചെയ്യാന് പറ്റുന്ന അതല്ലേ ഉണ്ടാവുള്ളു